നിയമപരമായ പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നിയമപരമായി തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് അതായത് ലീഗലി നമ്മൾ അതിന് വേണ്ടിയും പോവും ഇപ്പോൾ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് നമ്മൾ ഒന്നെങ്കിൽ നല്ല വഴക്കൊക്കെ ആണ് നമ്മൾ പോലീസിനെ അറിയിക്കും എന്താണെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോലീസിനെ അറിയിക്കുമല്ലോ അവിടെ നിന്ന് വില്ലേജിൽ പോവും സ്ഥലം അളക്കാൻ ആൾ വരും എ അങ്ങനെ നമ്മുടെ ന്യായമായ രീതിയിൽ ഈ രണ്ട് പേർക്കും ഞാൻ സത്യസന്ധമായി നീതി പുലർത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അതിനെ കൈകാര്യം ചെയ്യുന്നു കുടുംബ കാര്യങ്ങൾ ആണെങ്കിൽ എന്താണ് നമ്മൾ പോലീസിൽ പറയുന്നു അവിടെ നിന്ന് ഇപ്പം വനിത സ്റ്റാഫ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകിൽ മാക്സിമം നമ്മൾ അത് ഒത്തു തീർപ്പാക്കാൻ ശ്രമിക്കുന്നു ഒത്തുതീർപ്പിൽ അത് എന്താണ് ഒതുങ്ങി തീരുന്നില്ലങ്കിൽ അത് പോലീസ് കേസ് പിന്നെ ഫാമിലി കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒക്കെ പോകുന്നു പിന്നെ വായ്പകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ആദ്യം എന്ത് ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു ഒത്തു തീർപ്പിന് ശ്രമിക്കും അതിന് നടന്നില്ലേ ആണ് നമ്മൾ സാധാരണയായി കേസുകൾകൊക്കെ പോവാറ് നമ്മള് എന്താണ് ആദ്യം തന്നെ പോലീസിൽ പരാതി കൊടുക്കുന്നു പിന്നെ അവിടെ നിന്ന് അതു ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഇപ്പം ബാങ്കിൽ നിന്നൊക്കെ ആണെങ്കിൽ പിന്നെ വിജിലെൻസ് അങ്ങനെ അങ്ങനെ അങ്ങനെ ഒക്കെ പോവുന്നു അത് പോലെ തന്നെ ഇപ്പം മർഡർ കേസെസൊക്കെ ആണെങ്കിൽ പോലീസ് അവിടെ നിന്ന് അവർക്കൊന്നും അത് പെട്ടെന്ന് കണ്ടെത്താനായില്ലെങ്കിൽ സി ബി ഐ പിന്നെ കോർട്ട് അവിടെയൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു ആ ഒരു രീതിയിലോട്ടേക്കാണ് പോവുന്നത് ലീഗലി എന്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു ഇഷ്യൂ ആയി മാറുകയാണെങ്കിൽ നമ്മൾ അതിന് എപ്പോഴും എന്താണ് ലീഗലി സമീപിക്കണം പോലീസ് കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ സാധാരണയായിട്ട് ശ്രമിക്കാറുള്ളത്